വെല്ലുവിളി നിറഞ്ഞ ഒരു പാചകവിധി എന്ന് പറഞ്ഞാൽ പൊറോട്ട പൊറോട്ട അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടാക്കിയാൽ റെഡി ആവുന്ന ഒരു ഐറ്റം അല്ല എന്ന് നമുക്കറിയാമല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം ആയിട്ട് എല്ലാവരും ശ്രമിച്ച് കൊണ്ടിരിക്കുകയാണ് കാരണം കൊറോണ വന്ന ആ സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ അടച്ച് പൂട്ടി ഇരുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും യൂട്യൂബ് നോക്കിയൊക്കെ ഒരുപാട് പാചകങ്ങൾ ചെയ്ത് പരീക്ഷിച്ചവരാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ ആണ് ഞാനും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് വീശി അടിക്കുന്ന ഒരു രീതി ഉണ്ട് അതിൽ നിന്നാണ് അതിൻ്റെ ആ റൗണ്ട് ആയിട്ടുള്ള ഒരു ഷെയ്പ്പ് ഉണ്ടായി വരുന്നത് ഇത് ഞാൻ വീട്ടിൽ ഒരു ഫസ്റ്റ് ട ടൈം ഒക്കെ ട്രൈ ചെയ്തപ്പോൾ അത് പൊറോട്ട പോലെ ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ ഷെയ്പ്പ് അയിൻ്റെ ഒരു ടെക്സ്റ്ററ് വന്നിട്ടില്ലെന്ന് തന്നെ പറയാം എന്ന് വെച്ചിട്ട് അതിനെ ഞാൻ ഫ്ലോപ്പ് ചെയ്തതും ഇല്ല എൻ്റെ പരിശ്രമങ്ങളിലൂടെ അത് ഞാൻ റെഡി ആക്കി എടുത്തിട്ടും ഉണ്ട് ഏതൊരു കാര്യമായാലും ഫസ്റ്റത്തെ ടൈമിൽ നമുക്കൊരു വിജയം ഉണ്ടാകണമെന്നില്ലല്ലോ നമ്മൾ അതിൽ ശ്രമിച്ച് ശ്രമിച്ച് ആ ഒരു വിജയം കൈവരിച്ചെടുക്കുക അല്ലേ ചെയ്യുക അത്തരത്തിൽ ഞാൻ ഉണ്ടാക്കി എടുത്ത ഒരു ഐറ്റം തന്നെയാണ് പൊറോട്ട